ആ ഞങ്ങള് അങ്ങനെ ഇൻഷൂറായ്റ്റൊന്നുമില്ല

ആ ആ താൽപര്യം ഇപ്പോൾ കുറച്ച് ടൈറ്റാണ് അഞ്ഞൂറ്റെഴുപത്തിരണ്ട് രൂപയോ ആ ആ

മൂന്ന് മാസം കൂടുമ്പോൾ എത്രയാണ് അടയ്ക്കണ്ടത് ആണോ ഉം നാല് വർഷമാ ആ ആ ആ ആ ആ നോക്കട്ടെ ഞാൻ നോക്കയിട്ടേ ആ ഹസ്ബന്റ് ഇപ്പോൾ ഇവടെയില്ല പുറത്ത് പോയതായിരുന്നേ ആ ഉം ആഹ് ഹസ്ബൻറ്ന് ജോലി ഉണ്ട് സൺഡേ ആയിരിക്കും ലീവിൻ്റെ കാര്യമൊക്കെ ആ ആ ഈവനിങ് ഞാൻ വിളിക്കാം അപ്പൊ വന്നാൽ മതി കേട്ടോ

നാല് വർഷത്തെ പോളിസിയാണ് അല്ലെ ആണോ ആ എന്നാൽ ഓക്കേ